പാലക്കാട് ജിബ് ജില്ലയിൽ ഒരു വിധം ഒരുപാട് ഗതാഗത സംവിധാനങ്ങളുണ്ട് ഇപ്പോൾ നോക്കുകയാണ് വെച്ചാൽ റോഡ് ഗതാഗത മാർഗ്ഗം അങ്ങനെ ബസ് സർവീസ് ട്രെയിൻ റോഡിലൂടെ ഇപ്പം ബസ് സർവീസും മറ്റു കാര്യങ്ങളുണ്ട് ഇപ്പൊ പാലക്കാട് ആവട്ടെ പാലക്കാട് ട്രെയിൻ സർവീസും ലഭ്യമാണ് പാലക്കാട് റെയിൽവേ സ്റ്റേഷനുണ്ട് അപ്പോൾ അങ്ങനെ ഗതാഗത സംവിധാനങ്ങൾ ഒരുപാടുണ്ട് അപ്പോൾ ആരോ ഗതാഗത സംവിധാനങ്ങൾ തീർച്ചയായും ആളുകൾ അവിടെ താമസിക്കുന്ന പാലക്കാട്ട് ആളുകളുടെ ദൈനംദിന ജീവിതത്തെ കൂടുതൽ സ്വാധീനിച്ചിട്ടുണ്ട് ഇപ്പോൾ നം നമ്മൾ പാലക്കാട് ജില്ല രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തേഴ് ആരോ കേരളം രൂപീകരിക്കുന്ന ആ ഒരു സമയത്താണ് അന്നത്തെ ആ കാലഘട്ടം മുതൽ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഈയൊരു കാലയളവിൽ നോക്കുകയാണെന്നു വെച്ചാൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് പാലക്കാട് ജില്ലയ്ക്ക് അപ്പോൾ നമ്മൾ പാലക്കാട് പണ്ട് എന്ന് രീ പണ്ടത്തെ ആ ഒരു പാലക്കാടിൻ്റെ മുഖച്ഛായ എന്ന് പറയുമ്പോൾ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല പാലക്കാട് നോക്കാന്ന് വെച്ചാൽ ഒരുപാട് എല്ലാ സ്ഥലത്തിലോട്ടും ഉള്ള റോഡ് ഗതാഗതങ്ങളും മറ്റും എന്താ പറയുക കൂടുതലായിട്ടും മെച്ചപ്പെട്ടിട്ടുണ്ട് നഗരങ്ങൾ നോക്കുകയാണെന്ന് വെച്ചാൽ എല്ലാ റൂട്ടിലോട്ടും ബസ് സർവീസ് മറ്റു കാര്യങ്ങളുണ്ട് സ്ഥാപനങ്ങളായിക്കോട്ടെ കെട്ടിടങ്ങളായിക്കോട്ടെ എല്ലാ രീതിയിലും ഇപ്പോൾ റോഡിൻ്റെ ഇരുവശത്തും കെട്ടിടങ്ങളും മറ്റും കാണാൻ സാധിക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായിക്കോട്ടെ പുതിയ പുതിയ രീതിയിലുള്ള കോളേജുകളും അതുപോലെ സ്കൂളുകളും മറ്റുമെല്ലാം പ്രവർത്തനമാരംഭിച്ചിട്ടുണ്ട് അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടുത്തെ അങ്ങനെ പാലക്കാട് ജീവിക്കുന്ന പാലക്കാട്ല് താമസിക്കുന്ന ആൾക്കാർ പട്ടണങ്ങളിൽ താമസിക്കുന്ന ആൾക്കാരുടെ എണ്ണവും അതിൻ്റേതായ കൂടിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഗതാഗതങ്ങളുണ്ട് മാറ്റങ്ങളൊക്കെ ഒരുപാട് അവിടുത്തെ ആളുകളെ സ്വാധീനിച്ചിട്ടുണ്ട് പാലക്കാട് മുൻസിപ്പൽ ബസ്റ്റാൻഡുണ്ട് സ്വകാര്യ ബസ്സുകൾ നിർത്തുന്ന സ്റ്റേഡിയമുണ്ട് അപ്പോൾ അങ്ങനെ ടൗൺ സ്റ്റാൻഡുണ്ട് അങ്ങനെ എന്താ പറയുക പാലക്കാട് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അതിൻ്റേതായ രീതിയിൽ അവിടെ താമസിക്കുന്ന ആൾക്കാരുടെ ഇടയിലും അവരെ അത് സ്വാധീനിച്ചിട്ടുണ്ടെന്ന് വേണം പറയാൻ